നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു ഒരു തനതായൊരു ഭാഷയാണ് മലയാളം ഈ മലയാള ഭാഷയിൽ വളരെ ഭംഗിയേറിയ ഭംഗിയേറിയ ഒരു ഭാഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കേരളത്തിനെ അത് നന്നായിട്ട് ആസ്വദിക്കുന്നൊരു ഭാഷയാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ മലയാളികൾ അതിന് മലയാളം മലയാള ഭാഷകൾ ഞങ്ങൾ പറയുക മലയാളികൾ എന്നാണ് ഞങ്ങൾ വിശേഷിപ്പിക്കാറ് മലയാളികൾ മലയാളം പോലെതന്നെ മലയാളം പോലെതന്നെ മലയാളികളായ മല സുന്ദരികളും സുന്ദരന്മാരുമായൊരു നാടാണ് നമ്മുടെ കേരളം കേരളത്തിൽ തന്നെ ഇങ്ങനെ കാസർഗോഡ് തൊട്ട് പിന്നെ അത് തിരുവനന്തപുരം തൊട്ട് അങ്ങ് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ പക്ഷേ പല രീതിയിലുള്ള സംസാര രീതികളാണ് ഓരോ ജില്ലയിലും തൻ്റേതായ വ്യത്യാസമുണ്ട് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത മറ്റു രാജ് മറ്റു സംസ്ഥാനങ്ങളിൽ എല്ലാവരുടേയും ഭാഷകളും ഒരുപോലെയാണ് സ്ലാങ്ങുകൾ വരുന്നത് പക്ഷേ ഞങ്ങളുടെ കേരളത്തിൻ്റെ പിന്നെ ഓരോ ജില്ലയിലും ഓരോ രീതിയിലുള്ള ഓരോ ജില്ലയിലും ഓരോ രീതിയിലുള്ള പിന്നെ ഭാഷാശൈലിയാണുള്ളത് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ അതുകൊണ്ട് ഈ രീതിയനുസരിച്ചു തന്നെ ഇന്നയാൾ ഇന്ന നാട്ടുകാരനാണെന്നുള്ള ഐഡൻ്റിഫിക്കേഷൻ നമുക്ക് ചെക്ക് പെട്ടെന്ന് ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ തിരുവനന്തപുരംകാരെ കണ്ടാലും അവരുടെയൊരു സ്ലാങ്ങ് ഉണ്ട് ആ രീതിയിൽ ആ സംസാരിക്കുമ്പോൾ ആ ഇന്നയാൾ തിവനന്തപുരത്തുള്ള ഒരാളാണ് എന്നാൽ കോട്ടയത്തുള്ള ആ കോട്ടയത്തുള്ള ആളാണ് കൊല്ലത്തുള്ള ഓരോ ജില്ലയിലും ആ ഓരോ സ്ലാങ്ങ് വ്യത്യാസമുള്ളത് കാരണം ഓരോ ജില്ലക്കാർക്കും ഓരോ വ്യത്യാസം എന്നിരുന്നാലും നമ്മൾ മലയാളികൾ എന്നു പറഞ്ഞാൽ ഒറ്റക്കെട്ടാണ് ഒരു ഒരു ഏത് രീതിയിൽ എന്താവശ്യം വന്നാലും ജില്ലാ ഒരു ഇന്ന ജില്ലക്കാർക്ക് ഇന്ന ആവശ്യം വന്നാലും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നൊരു ഒരു മനസ്സുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ അതുപോലെതന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പിന്നെ സംസ്ഥാനമായ കേരളത്തിൻ്റെ തലസ്ഥാനമെന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തിലെ ഭാഷതന്നെ ഒരു തെക്കൻ മേഖലയാണ് തെക്കൻ മേഖലയിലാണ് ഈ തിരുവനന്തപുരം സ്ഥിതി ചെയ്യുന്നത് അവിടത്തെ ഒരു ഭാഷയാണ് ഏറ്റവും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് മറ്റു ജില്ലകളെക്കാളും ഉള്ളത് എന്നിരുന്നാലും എല്ലാവർക്കും ഇപ്പോൾ കലാകാരന്മാരാണെങ്കിലും ഓരോ രീതിയിലുള്ള സ്ലാങ്ങ് വെച്ച് കോമഡി ഷോകളിലൊക്കെ അവതരിപ്പിക്കാറുണ്ട് എന്നാലും എല്ലാം ഈ ജനങ്ങൾ ഈ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുള്ളവർ ഓരോ ജില്ലകളിലെ പല സ്ലാങ്ങുകൾ കേൾക്കുമ്പോൾ ആസ്വദിക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾക്ക് ഈ പക്ഷേ ഈ നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ മാത്രമേ ഇങ്ങനെയൊരു പ്രത്യേകതയുള്ളു മറ്റു സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയൊരു വ്യത്യാസം കാണാൻ സാധിക്കില്ല എല്ലാർക്കും ഒരേ രീതിയിലുള്ള സംസാരവും ഒരേ ഇതുമായിരിക്കും ഒരേ സ്ലാങ്ങുമായിരിക്കും എന്നിരുന്നാലും പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള ഓരോ ജില്ലയിലുള്ള ഓരോരുത്തരെ കണ്ടാലും അവരുടേതായൊരു വ്യത്യാസങ്ങളും ആ ഭക്ഷണ രീതിയില്പ്പോലും നമ്മൾക്ക് വ്യത്യാസരീതീ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ കറിവെക്കുന്നു ഉദാഹരണമായി മീൻകറി വെക്കുന്നതുപോലും തിരുവനന്തപുരംകാരുടേതും കൊല്ലംകാരുടേയും കോട്ടയംകാരുടെ ഓരോരുത്തരുടെ എറണാകുളംകാർ കാസർഗോഡ് എല്ലാവർക്കും അതിൻ്റേതായൊരു പ്രത്യേകതയുണ്ട് ആ ഒരു വ്യത്യാസ രീതിയിലാണ് ഭക്ഷണങ്ങൾപോലും നമ്മൾ ക്രമീകരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ഭാഷപോലെതന്നെ ഭാഷയുടെ രീതിയിൽപോലെ തന്നെയാണ് ഭക്ഷണകാര്യത്തിലും വ്യത്യാസമുള്ള ഒരു നാടാണ് നമ്മുടെ കേരളം പിന്നേ അതുപോലെതന്നെ കൾച്ചറലായിട്ടും നമുക്ക് ഓരോ ഓരോ ജില്ലയിലുള്ളവരെ നമുക്ക് പ്രത്യേകം പ്രത്യേകം തിരിച്ചറിയാനും സാധിക്കും ഒരു ഒരു പ്രത്യേകതയുണ്ട് ഓരോ ജില്ലയിലുള്ള ഇന്ന ഇന്നതാണ് ഇന്ന ജില്ലക്കാരാണ് അവരുടെ വേഷം ചിലവർക്ക് ചില ചില വേഷവിധാനങ്ങൾ കാണുമ്പോൾ

ഭംഗിയുള്ളൊരു വേഷവിധാനമാണ് അതുപോലെതന്നെ കോഴിക്കോട് സൈഡിലോട്ട് പോവുമ്പം മുസ്ലീങ്ങളുടെ അവിടെ ഒരു വേഷവിധാനം ആ ഒരു ഇത് ആ അവിടത്തെ വേഷവും ഇവിടത്തെ മുസ്ലീങ്ങളുടെ വ്യത്യാസം വേഷവിധാനം തമ്മിൽ വ്യത്യാസമുണ്ട് അങ്ങനെ ഒത്തിരി ഏറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് പക്ഷേ എന്നിരുന്നാലും ഞങ്ങളിതെല്ലാം നന്നായി ആസ്വദിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്